ഹലോ ഇത് കാസർഗോഡ് ട്രാവൽ ഏജൻസി അല്ലേ ആ ഇവിടുന്ന് കാസർഗോഡ് നിന്നു തന്നെ വിളിക്കുന്നതാണേ അത് ഞങ്ങൾക്ക് പത്തൊൻപതാം തീയതി ഒരു വയനാട്ടിലേക്കൊരു പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ടൂറിന് പോകാൻ പോകണമെന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് നി നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ പത്ത് പേരും ഒരു മൂന്ന് കുട്ടികളുമുണ്ടാവകും ആ ശരി ആ വൺ ഡേ ടൂറാണ് ആ രാവിലെ ഒരു നാലുമണിക്ക് പോകേണ്ട വിധത്തിൽ ആ ആ ആഹ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് വരുന്ന രീതിയിൽ ആ പത്താള് ആ എന്നാൽ ഒന്ന് വിളിച്ച് പറയണേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയ വാഹനം ആ ശരി ശരി ഓക്കേ